എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഈ കാലയളവ് എന്നു പറയണത് വേനൽക്കാലമാണ് വേനൽക്കാലം എന്നു പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്തുവാണെന്ന് വച്ചാൽ വേനൽക്കാലത്ത് നമുക്ക് എവിടേയ്ക്ക് വേണമെങ്കിലും റിലീസ് ആയിട്ട് ഫ്രീ ആയിട്ടു പോവാം മഴയാണെങ്കിൽ കോട്ട് ഉണ്ട് കോട്ട് എടുക്കണം അതേപോലെ കുട വേണം മഴ പെയ്തു പറഞ്ഞാൽ നമുക്കതിനനുസരിച്ച് നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരും അടിക്കടി ഉണ്ടാവുന്ന മഴ കൊതുകൾ അത് കൊതുകുകൾ പെരുകാനും രോഗങ്ങൾ വരാനുമൊക്കെ വളരെ കൂടുതലാണ് സാധ്യത നമുക്ക് വേനൽ കാലമാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നുമില്ല കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം കൂടും വെള്ളത്തിൻ്റെ ലഭ്യത നമ്മുടെ നാട്ടിൽ കുറയുന്നേ ഉള്ളൂ അല്ലാണ്ട് ഒരുപാട് സിറ്റുവേഷൻസ് വരുന്നില്ലേ അപ്പോൾ ഒരുപാട് മഴ പെയ്താൽ വെള്ളപൊക്കം പോലുള്ളത് കയറും അങ്ങനത്തെ ഒന്നും ഉണ്ടാകില്ല ഈ വേനൽക്കാലം നമുക്കെപ്പോൾ വേണമെങ്കിലും കളിയ്ക്കാൻ പോവാം അതേപോലെ റിലീസ് ആയി നടക്കാം അതേപോലെ ഏറ്റവും കൂടുതൽ ഫലഭൂയിഷ്ഠമായ പച്ചക്കകറികളും അതേപോലെ പഴങ്ങളും പഴവർഗ്ഗങ്ങൾ ഫ്രൂട്സ് ഇതൊക്കെ ഉണ്ടാകുന്നത് വേനൽക്കാലത്താണ് ഇപ്പോൾ തുണിയൊക്കെ തിരുമ്മി ഇട്ടാലും പെട്ടെന്ന് ഉണങ്ങണതും നമുക്ക് നല്ല ഒരു ക്ലൈമറ്റും വേനൽക്കാലമാണ് നമുക്ക് നമ്മുടേതായ ജീവിത രീതി മുന്നോട്ടു കൊണ്ടുപോവാൻ എല്ലാം വേനൽക്കാലമാണ് നമുക്ക് ബെസ്ഡ് ആയിട്ടുള്ള കാലം എന്നുപറയണത് അതുകൊണ്ട് തന്നെ വേനൽ കാലം ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടാമായതും ഇഷ്ടപ്പെട്ടതും നല്ല ഒരു ഋതുവായിട്ട് തോന്നിയിട്ടുള്ളത്